മത്സ്യബന്ധനത്തിനൊക്കെ പോകുമ്പോൾ അതായത് ഉപകരണങ്ങൾ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരുപാട് അതായത് മീൻ കിട്ടാനുള്ള ഉപകരണങ്ങൾ അതായത് നമുക്ക് ചൂണ്ടല് അതുപോലെതന്നെ വലിയ നെറ്റ് പിന്നെ അതുപോലെ തന്നെ അയിനി ഇപ്പോൾ നമ്മളിപ്പം അതായത് നടുക്കടലിൽ ഒക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായത് ഒരുപാട് അങ്ങനെയുള്ളത് ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വലയിടുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഒരുപാട് മീനുകൾ ഒരുമിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടു പോകും പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെയാണ് നമ്മൾ ഇത്രയും കാലങ്ങളിൽ അങ്ങനെ തന്നെയാണ് ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോകുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അവർക്ക് എന്തെങ്കിലും അപായം കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുപോകും പിന്നെ അതുപോലെതന്നെ പിന്നെ ഫുഡ് അതായത് അവർക്ക് ഇപ്പോൾ അവര് പോയിട്ടുണ്ടെങ്കിൽ ഒരു മാസം രണ്ടു മാസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം അങ്ങനെ അതായത് അങ്ങനെ പോയിട്ടാണ് വരിക അപ്പോൾ ആഴക്കടലിലേക്ക് പോകുമ്പോൾ അത്രയും ഡേറ്റ് ദിവസവും കാര്യങ്ങളും ഒക്കെ ആകും അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഫുഡ് അതായത് ഫുഡിൻ്റെ സാധനങ്ങൾ അതുപോലെതന്നെ ഗ്യാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ എന്ന് തന്നെ വച്ച് കഴിക്കാനുള്ള അരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും ഇതൊക്കെ തന്നെയാണ് നമുക്ക് അതായത് പണ്ട് തൊട്ടേ പിന്നെ മത്സ്യബന്ധനത്തിന് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ